ലോക സ്പോർട്സെന്ന് വെച്ചാൽ ഇപ്പൊരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായാലും അത് സ്പോർട്സിൽ ബന്ധപ്പെടേണ്ട ആ രണ്ട് രാജ്യങ്ങൾ ബന്ധപ്പെട്ട് ഒരു നല്ലൊരു ഗെയിം അല്ലെങ്കിൽ നല്ലൊരു കളി കാഴ്ചവെക്കുന്നുണ്ട് അത് അതിലൊരിതാണ് വേൾഡ്കപ്പ് വേൾഡ് കപ്പില് പല രാജ്യങ്ങളുണ്ട് അതിൽ ഒരു മതവുമോ അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള കുഴപ്പങ്ങളോ ഒന്നും അതിൽ അതിൽ ഇല്ല ആ വേൾഡ് കപ്പ് ഇന്നിതില് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിച്ച് അതിൽ ആരാണോ വിജയിയാകുന്നത് അതുമാത്രമാണുള്ളത് അല്ലാണ്ട് അതിൽ പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ മത ഇത് ഒന്നും ബന്ധപെടുന്നില്ല അത് ഇതിലൂടെ രണ്ട് രാജ്യങ്ങളുടെ ബന്ധം കൂട്ടിയുറപ്പിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്